തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മാധ്യമ സ്രോതസ്സെന്ന് പറയുമ്പം ഇപ്പം ഏതൊരു ജില്ലയിലാണെങ്കിൽ തന്നെ എന്താണ് ടീ വീ അതേപോലെതന്നെ പത്രം അതെപോലുള്ള കാര്യങ്ങളന്നെയാണ് പ്രധാനപ്പെട്ട മാധ്യമ സ്രോതസ്സായിട്ട് വരുന്നത് ഇനി നമ്മളൊരു പ്രദേശത്തെ ഇങ്ങനെ സ്പെസിഫിക്കായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ചൊരു പ്രദേശത്തെ മാത്രമായിട്ട് പറയുകയാണെങ്കിൽ നമ്മള് മെയിനായിട്ടും ഓരോരോ കമ്മ്യൂണിറ്റികളിൽ നടക്കുന്ന നി ഗ്രൂപ്പുകളിൽ നടക്കുന്ന കാര്യങ്ങള് അങ്ങനെയാണ് ന്യൂസ്സ് സ്പ്രെഡ് ആവുന്നത് പിന്നെ ഇപ്പം പണ്ടത്തെ കാലം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം കൂട്തലായിട്ടും മൊബൈൽ ഫോണ് പോലുള്ള സാം മധ്യമങ്ങൾലൂടെയാണ് വിവരങ്ങള് കൈമാറുന്നത് അപ്പോൾ വാട്സപ് ഗ്രൂപ്പായാലും ഇൻസ്റ്റഗ്രാമയാലും ഫേയ്സ്ബുക്കായാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങള് കുറെ കൂടുതൽ കുറെ കൂടി എന്താണ് വിശദമായിട്ട് നമുക്ക് അറിയാൻ പറ്റും പിന്നെ ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പം എന്താണ് നമ്മളുടെ നാട്ടിലെ കാര്യങ്ങളേക്കാളുപരി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങള് മാത്രേ നമുക്കറിയാൻ പറ്റുള്ളു പക്ഷെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളറിയണമെങ്കിൽ മേയ്നായിട്ടും ഓരോരോ കമ്മ്യൂണിറ്റി ഇപ്പം പൊളിറ്റിക്സാവട്ടെ ഇപ്പോൾ ഒരോരോ സംഘടന അതായത് യു ഡി ഫ് എൽ ഡി എഫ് എസ് എഫ് ഐ അതെപോലുള്ള സംഘടനകളിൽ തന്നെ അവരുടേതായ പ്രാദേശിക പത്രങ്ങളക്കെ ഉണ്ടാകും അതേപോലെ ഓരോ കമ്യൂണിറ്റി ഇപ്പം ഏത് വിധത്തിലുള്ള കമ്മ്യൂണിറ്റി ആവട്ടെ പൊളിറ്റിക്സാവട്ടെ അതേപോലെ വേറെ എന്തെങ്കിലും ആയിക്കൊൾട്ടേ അവരുടെ ന്യൂസ് പേപ്പറിൽ അവരുടേതായ കാര്യങ്ങള് അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങള് വരെ അവര് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമക്ക് കൂട്തലായിട്ട് പറയാൻ പറ്റും പിന്നെ എങ്ങനെയാണെന്നുവെച്ചാല് ഒരൂ സംഘടന ഇപ്പം പള്ളിയിലായാലും അമ്പലങ്ങളിലായാലും നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റും പൊതുവായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ മറ്റുള്ളവരുവായിട്ട് കമ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വഴി തന്നെയാണ് നമ്മളുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുക പക്ഷേ ഇപ്പം പണ്ടത്തെ കാലം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം കൂട്തലായിട്ടും മൊബൈൽ ഫോണിലൂടെ നമുക്ക് കൂട്തൽ വിവരങ്ങളറിയാൻ പറ്റും